ഞാന് ആമസോണിൽ നിന്ന് ഓൺലൈനായിട്ട് ഒരു സോഫ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നല്ല പ്രോഡക്ടാണ് കേട്ടൊ നല്ല മെറ്റീരിയല് കുഷ്യനക്കെ നല്ല സോഫ്റ്റാണ് ഞാൻ വിചാരിച്ചതിനെക്കാളും വളരെ നല്ലതാണ് ഒരോഫറ് കണ്ടിട്ട് വാങ്ങിയതാണ് പക്ഷെ നമ്മള് കൊടുത്ത പൈസയ്ക്ക് വർത്ത് ഫുള്ളാണത് അത് കാരണം ആർക്ക് വേണമെങ്കിലും നമ്മൾക്ക് അത് റെഫർ ചെയ്യാൻ പറ്റും അങ്ങനത്തെ നല്ലൊരു സാധനവാണത് അത് ക്ലീൻ ചെയ്യാനും അതിൻ്റെ കളറാണെങ്കിലും നമ്മള് വിചാരിച്ച അതേ കളറാണ് സൈറ്റില് കൊടുത്ത അതേ കളറ് തന്നെയാണ് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് മാത്രമല്ല അവരടെ ഡെലിവെറിയും പക്ക ആയിരുന്നു കാരണം അവര് പറഞ്ഞതിനെക്കാൾ ഒര് ദിവസം മുമ്പേ എനിക്ക് സാധനം ഡെലിവർ ചെയ്തു മാത്രമല്ല അവരെ കസ്റ്റമർ സർവീസും വളരെ നല്ലതാണ് അവര് എങ്ങനെ ഒക്കെ നമ്മളത് ഹാൻഡിൽ ചെയ്യേണ്ട വിധം എങ്ങനെയൊക്കെയാണ് എന്നുള്ള അവര് നന്നായിട്ട് എക്സ്പ്ലേയിൻ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല നമ്മുടെ വീടിൻ്റെ സ്പേസൊന്നും അങ്ങനെ പോകാത്ത രീതിയിലുള്ള ഒരു വർക്കൊക്കെയാണ് അതില് വരുന്നത് അത് കാരണം എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ നല്ല സാറ്റിസ്ഫൈഡാണ് ആ പ്രൊഡക്ടില്